അതെ നമ്മുടെ ജീവിതത്തിലെ ചിന്താവിഷിതമായ ഒരു കാര്യമാണ് മാലിന്യം കൈ കാര്യം ചെയ്യലും പൊതുശുചിത്വവും അത് മെച്ചപ്പെടുത്തേണ്ട രീതികളും ഇന്നത്തെ ഈ തലമുറയില് വർദ്ധിച്ചു വരുന്ന ഈ മാലിന്യ കൂമ്പാരങ്ങൾ അത് വളരെ ഏറെ ഈ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തായലും രാജ്യത്തായാലും ലോകത്താകമാനമായാലും ഇതൊരു വളരെ ഗൗരവമേറിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഓരോ വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഈ മാലിന്യങ്ങൾ ഇതെല്ലാം വളരെ ശുഷ്കാന്തിയോടെ തന്നെ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് തലത്തിലോ അല്ലങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലോ ഉള്ള പൊതുപ്രവർത്തകർ നമുക്ക് നൽകുന്ന ഈ ബിന്നുകളിലൊക്കെ ബയോബിൻ പിന്നെ അതെല്ലാം ഉപയോഗിച്ച് അതിൽ ധാരാളമായി ഈ മാലിന്യങ്ങൾ നമ്മൾ സംസ്കരിക്കുവാനും അതല്ലെങ്കിൽ മാലിന്യ മാലിന്യം കൂടുതലായി വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളെ നമ്മുടെ വീട്ടില് വരുന്ന മാലിന്യങ്ങൾ കൂടുതലും അവരുടെ പക്കൽ കൊടുത്ത് വിട്ട് അത് ഉത്തരവാദിത്ത പൂർവ്വം അവര് സംസ്കരിക്കുന്ന ഒരു രീതിയുണ്ട് അതിലൊക്കെ നമ്മള് വളരെ ആകൃഷ്ടരായി നമ്മൾ ഈ വ്യവസ്ഥയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ നമ്മളുടെ ഈ ജീവിതത്തിലെ നമ്മക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും രോഗമില്ലാത്തൊരു ജീവിതം ഉണ്ടാകുവാനുള്ളോരു ഭാഗമായി മാറി ക്കൊ മാറും എന്നുള്ളയിനെക്കുറിച്ച് സംശയവില്ല തീർച്ചയായിട്ടും എന്നാൽ ഇതിന് ഈ പുതു പുതു ജീവിതത്തിലുണ്ടാകുന്ന ഈ മാലിന്യ പ്രശ്നങ്ങളും നമ്മള് അത് ശുചിത്വമാക്കേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞല്ലോ ഇത് തന്നെയാണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റേതായ ഒരു സംസ്കാരവും അഭിമാനവും കാരണം വിനോദസഞ്ചാരികളെ ആകർഷിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ രാജ്യമായാലും നമ്മുടെ സ്റ്റേറ്റായാലും അതേപോലെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രദേശങ്ങളായാൽ പോലും അവിടെ എല്ലാം ഈ ശുചിത്വവും മാലിന്യ സംസ്കരണവും ഒക്കെ കൃത്യതയോടെ ചെയ്യുവാണങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് കൂടുതലാണ് കൂടുതൽ വിദേശികൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് മേഖലയിലേക്ക് വരികയും അതിൽ നിന്നുണ്ടാകുന്ന ഒരു സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഈ ഒരു സന്ദർഭത്തില് നമ്മളെ സംബന്ധിച്ചെടുത്തോളം പൊതുവായിട്ട് ഉള്ള ഈ വിഷയങ്ങള് ഇങ്ങനെയുള്ള ഈ സ സഞ്ചാരികളെ വിനോദസഞ്ചാരികളുടെ വരവിനെ അവരുടെ അവരെ ആകർഷിക്കുന്നതിന് നമ്മളോരോരുത്തരും തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോട് എടുത്തും നമ്മളിത് ഈ മാലിന്യ സംസ്കരണവും ശുചിത്വവും അതുപോലുള്ള തന്നെ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള മറ്റ് ഭാഗീകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും വിദേശത്ത് നിന്നുള്ള ധാരാളം ആൾക്കാരെത്തുകയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം വളരെ സമ്പന്നമായ രീതിയിൽ ആകുകയും ചെയ്യ് ആകുകയും ചെയ്യ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ഈ വികസിത രാജ്യത്തിൽ തീർച്ചയായിട്ടും ഭരണ സംവിധാനങ്ങള് ജനാധിപത്യമായൊരു രാജ്യമായ ഇന്ത്യയില് അതിലെ ഭരണ സംവിധാനം വളരെ ഒരു നല്ല ഒരു രീതിയിൽ നടത്തുന്ന ഒരു രാജ്യമാണിത് കാരണം ഇവിടെ സംസ്ഥാനതലത്തിൽ പഞ്ചായത്തുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ ധാരാളമായി ഉള്ള വളരെ ഉത്തരവാദിത്വ പൂർണ്ണമായ കൃത്യതയോടെ കൃത്യതയോടെ ഈ പറഞ്ഞ ത്രിതലപഞ്ചായത്തുകള് ഭരിക്കുമ്പോൾ തീർച്ചയായും ജനാ അതിലുള്ള ജനപ്രതിനിധികളും നമ്മുടെ ഓരോ ഭവനങ്ങളിൽ വന്ന് നമ്മളുടെ പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ നിർദ്ദേശങ്ങളെല്ലാം നമ്മള് തീർച്ചയായും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ തലത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുവൊക്കെ ഇതേ പോലുള്ള ഈ പറ ഈ പറഞ്ഞ മാലിന്യ കൈകാര്യം ചെയ്യുന്നതും ഈ ശുചിത്വത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി അവരെ കൂടുതല് ഭ പങ്കാളികളാക്കി തീർച്ചയായിട്ടും അതിന് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേയും അതുപോലുള്ള പഞ്ചായത്ത് അധികാരികളുടേയും ഒക്കെ ആജ്ഞ അനുസരിച്ച് നമ്മളിതിനെ മുമ്പോട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യം വളരെ നല്ല ഒരു ശുചിത്വ മേഖല ഒരു ശുചിത്വ സംസ്ഥാനം അല്ലെങ്കിൽ ശുചിത്വ രാജ്യമായി മാറുകയും അതേപോലെ നമ്മുടെ പ്രദേശത്ത് ധാരാളം സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ എത്തുകയും അതിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ ഗുണകരമാവുകയും എല്ലാം ചെയ്യുവെന്നുള്ളത് വളരെയേറെ സത്യമാണ് ഇതേ വഴി ഇത് ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടൊരു വസ്തുതയാണ് ഇത് കുടുംബങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ നിന്നും കോളേജ്കളിൽ നിന്നുമൊക്കെ വരുന്ന പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ പോലും വിപുലമായിട്ടുള്ള ഈ കുടുംബശ്രീയും അതുപോലുള്ള സംവിധാനങ്ങളും ഉള്ളപ്പോൾ തീർച്ചയായും അയൽക്കൂട്ടങ്ങളുടെയൊരു പ്രസക്തി ഇവിടെയുണ്ട് നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങൾക്കും അതേപോലുള്ള റിക്രിയേഷൻ അത് നമ്മുടെ ക്ലബ്ബ്കൾക്കും എല്ലാം സ്വാഭാവികമായിട്ടും ഇതിന് വളരെ ഉത്തരവാദിത്വപ്പെട്ട സംഗതിയാണ് അപ്പം അവരുടേയും കൂടെ കൂട്ടായൊരു പ്രവർത്തനം കൊണ്ട് അതായതൊരു കുടുംബം ഒരു ഒര് അയൽക്കൂട്ടം അതുപോലുള്ള സി ഡി എസ്സുകള് ഇങ്ങനെയുള്ള ഈ മേഖലയിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്ന് ഒക്കെയുള്ള ഈ ഒരു അഭിപ്രായവൽക്കരണം വരികയും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ സംസ്ഥാനവും നമ്മടെ രാജ്യവും വളരെ നല്ല ശുചിത്വ മേഖലയില് ഒന്നാം നമ്പർ സ്ഥാനത്തേക്കെത്തുകയും അതിൻ്റേതായൊരു വലിയൊരു മാറ്റം നമ്മുടെ ഭാവി തലമുറക്കുണ്ടാവുകയും ചെയ്യുന്നുള്ളത് ഏറെ വസ്തുതയാണ് നിർത്തുന്നു